റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്കിപ്പം റേറ്റിനനുസരിച്ചായിരിക്കും കൂടുതലും ഇപ്പം നമ്മൾ ഒരു ആയിരം ആയിരത്തി ഇരുനൂറ് രൂപയ്ക്ക് മേലെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളത് അലക്കിയൊക്കെ വരുമ്പോൾ അതിന് കളർ പോകും അതിന്റെ സ്റ്റിച്ച് വിട്ടുപോകും അങ്ങനെ പല പ്രശ്നങ്ങളും വരും പക്ഷേ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് നിർമിച്ച വസ്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല അതായത് അത്യാവശ്യം നല്ല പിന്നെ അതായത് ഈട് നിക്കും നമുക്കൊരു മൂന്നാലഞ്ച് വർഷം എങ്ങനെയാണെങ്കിലും കേട് കൂടാതെ അതേ കളറുകളും അതേ പുത് പുതിയ തനിമയിലും നമുക്ക് അത് ഇ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഇന്നത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വളരെ നൈസ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള അതായത് നിഴലടിക്കുന്ന തുണികളും അങ്ങനെയുള്ള പക്ഷേ നെയ്ത്ത് തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈനിങ്ങ് പോലും ഇല്ലാണ്ട് നമുക്ക് നമുക്ക് തയ്ച്ചിട്ട് അത് ഇടാൻ കഴിയും അങ്ങനെ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധി അധികം വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും തുന്നിയതായിട്ടുള്ള അതായത് നെയ്തതും തുന്നിയതുമായ വസ്ത്രങ്ങൾ ആൾക്കാർ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത് മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ